തീർച്ചയായും ഞാൻ നിരവധി ബൈക്ക് യാത്രകൾ നടത്തിയിട്ടുണ്ട് കൂടുതലും സോളോ ട്രിപ്പുകളാണ് ഞാൻ നടത്തുന്നത് അതുപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയും പോകാറുണ്ട് കൂടുതലും സോളോ ട്രിപ്പുകളിൽ എന്നെ സഹായിക്കുന്നത് അവിടുത്തെ ഗ്രാമത്തിലെ ആളുകളാണ് നമ്മൾ ചില കാരണങ്ങൾ ചെന്ന് കഴിയുമ്പോൾ നമുക്കവിടെ റൂമുകൾ ലഭ്യമായില്ലെങ്കിൽ നമ്മളവരോട് സംസാരിച്ച് കഴിയുമ്പോൾ അവർ നമുക്ക് താമസോം ഭക്ഷണവും അവരുടെ വീട് വീടുകളിൽ തന്നെ അവര് നമുക്കൊരുക്കി തരുന്നതാൻ നമ്മൾ അവരെ അവർ നമ്മളോടെങ്ങനെ ബഹുമാനിക്കുന്നതുപോലെ തന്നെയാണ് നമ്മൾ തിരിച്ചവരോട് ബഹുമാനിച്ച് അവരുടെ വീടുകളിൽ താമസിക്കുന്നത് അത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് താമസിക്കാനും ഭക്ഷണവും എല്ലാം അവര് നമുക്ക് അറേഞ്ച് ചെയ്ത് തരുന്നതാണ് നമുക്ക് ചിലവ് കുറവാണ് എൻ്റെ സോളോ ട്രിപ്പുകളെലെല്ലാം അതുപോലെയുള്ള യാത്രകളായത് കൊണ്ട് എപ്പഴും നമുക്ക് ചിലവുകൾ കുറവാണ് പിന്നെ വീകെൻറ്റ്സിലാണ് എപ്പഴും യാത്രകൾ ചെയ്യാറ് ശനീ ഞായർ ദിവസങ്ങളാണെങ്കിൽ നമുക്ക് ആ പ്രത്യേക ലീവെടുക്കേണ്ട കാര്യമില്ലാത്തത് കൊണ്ട് നമുക്ക് നമ്മുടെ സാലറിയും വലിയ നഷ്ടം വരില്ല അതുകൊണ്ട് തന്നെ ശനിയാഴ്ച പോ സ്റ്റാർട്ട് ചെയ്ത് മ തിങ്കളാഴ്ച്ച രാവിലെ വരുന്ന രീതീയിലാണ് എൻ്റെ യാത്രകളെപ്പോഴും മാക്സിമം രണ്ട് ദിവസത്തിനുള്ളിൽ യാത്ര ചെയ്ത് തിരിച്ചെത്താൻ നോക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ സാലറിയിൽ അല്ലെൽ നമ്മുടെ ജോലിയെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും വരാറില്ല